ഇപ്പോൾ അതിശൈത്യ കാലമൊക്കെ വരുമ്പോൾ നമുക്ക് ചെടികളൊക്കെ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെണ്ടുമല്ലികേൻറെ ഒരു സീസണാണ് നമുക്ക് ഒരുപാട് ചെണ്ടുമല്ലികയും കാര്യങ്ങളൊക്കെയുണ്ട് എൻ്റെ വീട്ടിൽ പിന്നതുപോലെത്തന്നെ ഡാലിയ ഡാലിയയൊക്കെ ഓരോ സീസണിലേ ഉണ്ടാവുകയുള്ളു പിന്നങ്ങനെ തുളസി അങ്ങനത്തെ കുറേ ചെടികളുണ്ടല്ലോ അപ്പോൾ തുളസിയൊക്കെ നമുക്ക് നല്ലൊരു ഔഷധഗുണം ചെയ്യുന്നൊരു ചെടിയാണ് അപ്പോൾ ആ ചെടികളൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വച്ചാൽ വേനൽക്കാലത്തെങ്ങനെ പരിപാലിക്കുകയെന്ന് വച്ചാൽ മഴക്കാലത്ത് അതായത് വേനൽ അതായത് ഓവറ് ചൂടല്ലാത്ത ടൈമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നരാടമൊക്കെയാണ് വെള്ളമൊക്കെ കുടയുക അതായത് വെള്ളമൊക്കെ തളിക്കാറ് ചെടിക്കളിൽ പിന്നെ വേനൽക്കാലം അതായത് ഭയങ്കര അതിശൈത്യമൊക്കെ വരുമ്പോൾ ഡെയിലി വെകുന്നേരം അതായത് ഉച്ചക്കൊന്നും ഒരിക്കലും വെള്ളം തളിക്കാൻ പാടില്ല ഒന്നുമില്ലെങ്കിൽ രാവിലെ വെള്ളമാക്കുക അല്ലങ്കിൽ വൈകുന്നേരം എന്നിട്ട് മണ്ണെല്ലാം ഒന്ന് കുത്തിക്കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെടി നല്ലവണ്ണം റെഡിയാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ മെയിനായിട്ട് വെള്ളമാണ് നിർബന്ധം